ഹലോ ഹലോ ബി പി ഏജൻസിയാണോ ഒരു ഗ്യാസ് സിലിണ്ടറിനാണ് കസ്റ്റമറാണ് എനിക്ക് ഒരു സിലിണ്ടർ ബുക്ക്യ്യണോല്ലോ

അതെ എൻ്റെ ഉപഭോക്തൃ ഐ ഡി ബി പി എട്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ഒന്ന് അതെ അതെ ബി പി ബി ബി ബി ബിഗ് ബി പി എണ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് ഇരുപത്തൊന്ന് എൻ്റെ വിലാസം കാശ്മീരം ഇ വി ആർ എ ടു എഫ് ഉപാസനാ ഗാർഡൻസ് ഉപാസന ഉപാസനാ ഗാർഡൻസ് ജഗതി തൈക്കാട് അതെ അത് എനിക്ക് നാളെ എൻ്റെ കൊച്ചുമകന്റെ ബർത്ത് ഡേയാണ് അപ്പോള് അതുകൊണ്ട് അടിയന്തിരമായിട്ടെനിക്കിന്ന് സിലിണ്ടര് കിട്ടണം കേട്ടാ ശരി